ആ ഞാൻ നഗരങ്ങളിലോട്ട് കുടിയേറാനാണ് എല്ലാവർക്കും താല്പര്യം പക്ഷെ ഞാൻ അതിനോട് അങ്ങനെ യോജിക്കുന്നില്ല ഇപ്പൊഴും ഞാൻ ഗ്രാമത്തിലെ കാഴ്ചകളാണ് കൂടുതലും ഗ്രാമത്തിൽ താമസിക്കുന്നതാണ് എനിക്കിപ്പോഴും ഇഷ്ടം കാരണം എന്നു ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു ജീവിത രീതി ശരിക്കും കൂടുതലും ഗ്രാമങ്ങളിൽ ആവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം അതിൻറ്റേതായ മാറ്റങ്ങളും എന്താ പറയാ നഗരങ്ങളിൽ പോവണ സമയത്ത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ഒരുപാട് തിരക്കേറിയ ഒരു ജീവിതമാണ് നഗരങ്ങളിലെല്ലാവരും ഉള്ളത് തൊട്ടടുത്തുള്ള അയൽവാസിയെ പോലും അറിയാത്തൊരു ജീവിതമായിരിക്കും ആ വീട്ടിനുള്ളിൽ നാലു ചുമരുണ്ടെങ്കിൽ അതിനുള്ളിലായിരിക്കും അവരുടെ ജീവിതം പിന്നെ നഗരങ്ങളിലായിക്കോട്ടെ മറ്റ് മലിനീകരണും വായു മലിനീകരണം വെളളം മറ്റും അങ്ങനെ പൊടിയും മറ്റും എല്ലാം നിറഞ്ഞൊരു എന്താ പറയുക തിരക്കേറിയ ജീവിതമായിരിക്കും നഗരങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഗ്രാമങ്ങളെ നോക്കുകയാണ് വെച്ചാൽ ഏകദേശം ഒരുപാട് നമുക്കിപ്പോൾ വീട് നമുക്കായിക്കോട്ടെ നമ്മുടെ വീടും നമുക്ക് കൂടെ പറമ്പും മറ്റു കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ നഗരങ്ങളിലായിക്കോട്ടെ വീടിനു ചുറ്റി സ്ഥലം കുറവായിരിക്കും നമുക്ക് എന്നെങ്കിലും ഇപ്പോ നമുക്ക് വീട്ടിൽ എന്തെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലങ്ങളും മറ്റൊന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ചെടിയിൽ എന്തെങ്കിലും ചട്ടികളിൽ എന്തെങ്കിലും ഉപയോഗിക്കണം അല്ലെങ്കിൽ ടെറസൊക്കെ നമുക്ക് നോക്കേണ്ടി വരാം അപ്പോൾ അങ്ങനത്തെയുണ്ട് അപ്പം ഗ്രാമങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ശുദ്ധ വായു ശ്വസിക്കാം അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ടാവും അപ്പോൾ അവിടെ വരെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വരാന്ന് വെച്ചിട്ടുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവും ആരും അറിയാത്തതായിട്ട് ഉണ്ടാവില്ല എല്ലാവരോടും നമ്മൾ നല്ല ഗ്രാമത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവരോടും എ ഇടപഴകിയും അത്യാവശ്യം അതിൻ്റെ ഇടെ നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഗ്രാമത്തിലിരിക്കാനാണ് ഇഷ്ടം ആ ഒരു പച്ചപ്പും ആ ഒരു പാടങ്ങളും എല്ലാം എന്താ പറയുക ഗ്രാമത്തിലെ ജീവിതം എന്നു പറയുമ്പോൾ അത് നമ്മൾ ആസ്വദിക്കൽ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടൊരു കാര്യം തന്നെ ആണ്